ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലയാള ഭാഷയെന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്കൃതം അങ്ങനത്തെ ഭാഷകളിൽ നിന്നൊക്കെ ഉത്ഭവിച്ച് വന്നൊരു ഭാഷയാണ് പക്ഷെ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തം മാതൃഭാഷ പോലും സംസാരിക്കാൻ പറ്റാത്ത ഒട്ടനവധി ഒ കോളേജ് സ്കൂളുകൾ കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റുപാട് തന്നെ ഉണ്ട് ഫ് ഇപ്പം മലയാളം സംസാരിച്ചാൽ ഫൈൻ കാര്യങ്ങളൊക്കെ രീതി അങ്ങനെ വരുന്നൊരു ചു ഒരു തലമുറ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള സ്കൂളുകൾ കാര്യങ്ങളൊക്കെ വരുന്നത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിഎന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റഡ് ആയിട്ട് വരുന്നുണ്ട് അവിടെ വരുന്ന കുട്ടികൾ മലയാളം സംസാരിച്ചാൽ ഫൈൻ ഈടാക്കുക അങ്ങനത്തെ ഒരു രീതി കാര്യങ്ങൾ അതുപോലെ തന്നെ ഇപ്പം സ്വന്തം ഭാഷ എന്ന് പറയുന്നതിനോട് അത്രയും താത്പര്യം ഉള്ള ആൾക്കാരൊക്കെ അത് ശരിക്കും കുറച്ച് പേർ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും തന്നെ ഇപ്പം ഇംഗ്ലീഷ് കാര്യങ്ങൾ ജർമ്മൻ അങ്ങനെ ഓരോ ലാംഗ്വേജുമായിട്ട് പ പഠിച്ച് പുറം രാജ്യങ്ങളിലേക്ക് പോകുക അങ്ങനത്തെ ഒരു നേരെ രീതിയിലേക്കാണ് വന്നിരിക്കുന്നത് സ്വന്തം ഭാഷയോട് അത്രയും അധികം താത്പര്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു ഒട്ടനവധി ആൾക്കാരുണ്ട് എന്തിന് പറയാൻ ഇപ്പം സ്വന്തം ഭാഷയായ സംസാരിക്കുന്ന മലയാളം സംസാരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ അത് മര്യാദക്ക് വായിക്കാൻ പോലും അറിയാത്ത വൈ ഒട്ടനവധി ആൾക്കാർ വരുന്നുണ്ട് ഇപ്പം മലയാളത്തിൽ അക്ഷരങ്ങൾ പോലും അറിയാത്ത തലമുറ തന്നെ ഉണ്ട് നമ്മുടെ ചുറ്റും മലയാളത്തിന് എത്രയോ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഇഷ്ടം മാതിരി ഇതും കാണുന്നുണ്ട് നമുക്ക് ചുറ്റും തന്നെ നോക്കി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇപ്പോൾ ആർക്കും തന്നെ മലയാളത്തിനോട് അത്ര അധികം താത്പര്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇംഗ്ലീഷ് ജർമ്മൻ അങ്ങനത്തെയുള്ള ലാംഗ്വേജുകൾ ഒക്കെ വന്ന് ഇപ്പം നമുക്കിടയിൽ കയറി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഇപ്പം മലയാളത്തിനെയൊക്കെ കാൾ ഒരു മതർ ടംഗ് എന്നതിനേക്കാൾ ഉപരി ഒരു അത്രയും അധികം ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ വെ വരുന്നൊരു രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ മറ്റു ഭാഷകളുടെ കടന്ന് കയറ്റം നമ്മുടെ ഭാഷയെ ഒരു അടിച്ചമർത്തുന്ന രീതിയിലേക്കായിട്ടുണ്ട് ആർക്കും ഒരു വേണ്ട എന്ന ഒരു നിലയിലേക്ക് എത്തുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നുമുണ്ട്